ഇപ്പോൾ എനിക്ക് കളിക്കാനുള്ള കളി ഇഷ്ടമുള്ള ഒരു കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ക്രിക്കറ്റ് ഫുട്ബോൾ ഇങ്ങനത്തെ കളിയൊക്കെയാണ് സാധാരണ കൂടുതലായിട്ടും കളിക്കാറ് അപ്പോൾ നമ്മുടെ ഗ്രാമത്തെ പ്രദേശത്തൊക്കെ ആവുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ ഒക്കെയുണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ കൂടിയിട്ട് ഗ്രൌൻഡ് ഇതാക്കുകയും ഉണ്ടാക്കുകയും അവിടെ പോയിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാറൊക്കെ ആയിരുന്നു പതിവ് രാവിലെ നമ്മൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ കളിക്കാൻ പോയി ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ കളി നിർത്തി നമ്മൾ വീട്ടിൽ വരികയൊക്കെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഫുട്ബോൾ കളിക്കാൻ ആണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ എന്താണ് പറയുക വേനൽക്കാലത്ത് അങ്ങനെ കൂടുതലും ഓടി നടക്കാനൊക്കെ പറ്റിയ തണലുള്ള സ്ഥലം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറേ നാൾ ഒരു മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വയലിലൊക്കെ ഒരുവിധം കൃഷിയൊക്കെ ഇറക്കിയത് വിളവെടുത്ത സമയമായിരിക്കും അപ്പോൾ അവിടെ വയലൊക്കെ കൊയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ആ വയൽ അതിൻറെ ഓണർ ആ ഉടമസ്ഥനോട് പോയിട്ട് ജസ്റ്റ് കളിച്ചോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അവർ സമ്മതിക്കുകയൊക്കെയാണെങ്കിൽ നമ്മൾ വയലിൽ മഡ് ഫുട്ബോൾ പോലെയുള്ള കളിയൊക്കെ കളിക്കുമായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയായിരുന്നു കാരണം നമ്മൾ ചെളിയിൽ കൂടിയൊക്കെ ഓടി നടന്ന് ബോളിന്റെ പുറകെ നടന്ന് കളിച്ച് നല്ല രസമുള്ള ഒരു കളിയായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണിലൊക്കെ ചെളി പോകുമ്പോൾ നമ്മൾ ഓടിപ്പോയി എന്താണ് പറയുക തോട്ടിലിറങ്ങി കണ്ണൊക്കെ കഴുകി പിന്നെയും കയറി വരികയും ഉരുണ്ട് വീഴുകയും മറിഞ്ഞ് കുത്തി നല്ല രസമുള്ള കളിയായിരുന്നു അത് അതൊക്കെ എന്താണ് പറയുക ഇപ്പോഴും കളിക്കാൻ ഒക്കെ ഉള്ള ഒരു താൽപര്യമുള്ള ഒരു കളി തന്നെയാണ്